വാക്സിനേഷൻ എല്ലാവർക്കും എടിത്തിട്ടുണ്ടായിരുന്നു ആദ്യം ഒരെണ്ണം വീതമേ ഉള്ളായിരുന്നു എടുത്തത് അങ്ങനെ എല്ലാവർക്കും പിന്നെ വാക്സിനേഷൻ എടുത്ത് അത് ഇപ്പോൾ വീണ്ടും ഒന്നു കൂടെയുണ്ടായിരുന്നത് രണ്ട് വീതം ആണ് എല്ലാവർക്കും എടുത്തത് അന്ന് ഒരുപാട് പേർക്കും എടുക്കാനും ബുദ്ധിമുട്ടുകളായിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും രണ്ടാമത്തേത് എടുത്ത് പിന്നെ മൂന്നാമത്തെ ഒരു വാക്സിനേഷൻ ഉണ്ടായിരുന്നു അത് ആർക്കും എട്ട് പേർക്കൊക്കെ എടുത്തിട്ടുള്ളൂ ഒരുപാട് എല്ലാവർക്കും അത് എടുത്തവർക്കെല്ലാം അസുഖങ്ങളായിരുന്നു എല്ലാവർക്കും വിമ്മിഷ്ടവും നെഞ്ച് വേദനയും അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു അത് എടുത്തത് ഒരുപാട് പേർക്ക് ഇന്നും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നും വിമ്മിഷ്ടവും ചുമയും ഒക്കെയായിട്ടാണ് ഇന്നും കഴിയുന്നത് അതുകൊണ്ട് ഒരുപാട് പേർക്ക് എടുക്കാനുണ്ട് മൂന്നാമത്തെ വാക്സിനേഷൻ രണ്ട് രണ്ട് വട്ടമേ എടുത്തിട്ടുള്ളൂ മൂന്നാമത്തെ എടുത്തിട്ടില്ല ഇപ്പോഴും വാക്സിനേഷൻ എടുക്കും എടുക്കാതെ ഇരിക്കുന്നവരും ഉണ്ട് എടുക്കുന്ന എടുക്കാതിരിക്കുന്നവരും ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഹെൽത്തുകളിലായാലും ഹോസ്പിറ്റലുകളിലായാലും പോയി ഇവ എടുക്കും എടുത്തിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്കും ഫസ്റ്റും സെക്കൻഡും ഞങ്ങൾ എടുത്തു മൂന്നാമത്തെ എടുത്തില്ല എടുക്കാനും അപ്പോൾ പിന്നെ ആളുകൾ ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല വാക്സിനേഷൻ എടുത്തവർക്കെല്ലാം ഇപ്പോഴും വിമ്മിഷ്ടവും നെഞ്ച് വേദനയും ആ അവരും അനുഭവിക്കുന്ന ഒരുപാട് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ വാക്സിനേഷൻ എടുക്കുന്നവർക്കെല്ലാം അസുഖങ്ങളാണ് അതുകൊണ്ട് എല്ലാവരും ആരും ഒന്നും ഒരുപാട് പേരും എടുത്തിട്ടില്ല മൂന്നാമത്തെ എടുത്തവരെല്ലാം ഇങ്ങനെ പറഞ്ഞ് കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഞങ്ങൾക്ക് വയ്യ മൂന്നാമത്തെ എടുക്കേണ്ട അത് തിരക്കിൻ്റെ മൂലം മൂലം പെട്ടെന്ന് എടുക്കണമല്ലോയെന്ന് ചില ആളുകളെല്ലാം പോയി വാക്സിനേഷൻ മൂന്നാമത്തെ അങ്ങ് എടുത്ത് അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ് അത് ആ രോഗികളെല്ലാം അത് ഇപ്പോഴും ഓരോരുത്തരും ഹോസ്പിറ്റലായാലും